ഹെലോ ഇത് ക്യാബിന്റെ ഓഫീസല്ലേ അ ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കോഴിക്കോട് വരെ പോകാനായിട്ട് ഒരു ക്യാബ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതു വരെ ഡ്രൈവർ ഇവിടെ എത്തിയിട്ടില്ല സൊ എനിക്കിപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇനി ഇപ്പം ഞാൻ പോയിക്കഴിഞ്ഞാൽ എനിക്ക് കറക്ട് ടൈമിലെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ സൊ എനിക്കവിടെ ഈ ക്യാബ് ഒന്ന് ക്യാൻസൽ ചെയ്യണം ആ ഓക്കേ ഓക്കേ നിങ്ങള് വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്ത് ഡ്രൈവറെ കോൺടാക്ട് പറയുമോ അതോ നമ്മള് തന്നെ പറയണോ ഓക്കേ നിങ്ങള് പറഞ്ഞാൽ മതി ആയിക്കോട്ടെ അപ്പോൾ ഞാന് ഇന്നത് എന്താ പറയുക സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കോഴിക്കോട് വരെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങള് ഇതുവരെ ഡ്രൈവറിവിടെ എത്തിയിട്ടില്ല അപ്പം സൊ എനിക്ക് ലേറ്റ് ആയതുകൊണ്ട് ഇനി പോയിട്ട് കാര്യമില്ല അപ്പോൾ ഞാന് ക്യാബ് ക്യാൻസൽ ചെയ്യുകയാണ് അപ്പോൾ ബ് പേയ്മെൻറ്റ് ബാലൻസ് എനിക്ക് ഗൂഗിൾ പേ തന്നെ റിട്ടേൺ ചെയ്താൽ മതി ഞാനായിരത്തി അഞ്ഞൂറ് രൂപ പേ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കേ ഓക്കേ താങ്ക്യൂ താങ്ക്യൂ നിങ്ങളെന്തായാലും ക്യാബ് ക്യാൻസൽ ചെയ്തേക്ക് ഞാനത് വിളിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വിളിച്ചത് ഓക്കേ താങ്ക്യൂ